ഞാൻ അങ്ങനെ ഓട്ടം മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല തന്നെയല്ല ട്രയൽ റണ്ണിംങ്ങോ അല്ലെങ്കിൽ വനത്തിനുള്ളിലൂടെയുള്ള ഓട്ടോ ഒന്നും ഞാൻ പരീക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം ഇമ്പോർടൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രാവിലത്തെ വ്യായാമം അതിന് ഓട്ടം ഒരു നല്ല വ്യായാമമാണ് ഇപ്പം ആരോഗ്യം നല്ല ആരോഗ്യം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് രാവിലെ പ്രഭാതത്തിലുള്ള ഓട്ടവും ഒക്കെ എല്ലാവർക്കും നല്ലതാണ് തന്നെയല്ല ആരോഗ്യ പ്രശ്നങ്ങളോ പോലെയുള്ളവർ ഷുഗറ് പ്രഷറൊക്കെ ഉള്ളവര് രാവിലെ കുറച്ചു സമയം ഓടുകയും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് വളരേയധികം നമ്മുടെ ശരീരത്തെ ഫിറ്റായിട്ട് ആരോഗ്യായിട്ട് ഇരിക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മള് ചെറുതായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുകയാണെങ്കില് നമുക്ക് അധികം മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ടു പോകാനായിട്ട് സാധിക്കും പിന്നെ നമ്മള് ഞാന് ബീച്ച് സൈഡിലൊക്കെ ഇതുപോലെയുള്ള സ്പിൻ റണ്ണിങ് അല്ലെങ്കില് കുന്നിൻ ചെരുവിലൂടെ ഉള്ളതൊക്കെ ഓട്ടമൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് വനത്തിനുള്ളിലൂടെ ഉള്ള ഓട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല